പണ്ടത്തെ ഫോണുകളെ അപേക്ഷിച്ചു നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഫോണുകൾ അതിസാങ്കേതികവിദ്യകളോടുകൂടി പുതിയതരം സാങ്കേതിക വിദ്യകളോടുകൂടി പ്രവർത്തിക്കുന്നതാണ് പണ്ട് ഫോൺ വിളിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു അതിനുശേഷം ഫോൺ വിളിക്കാൻ പറ്റുന്ന സാഹചര്യമായി വന്നു അതാണ് പൺ പണ്ടത്തെ ഫോൺ എന്നു പറയുന്നു അപ്പോള് അതിൽനിന്നു ഇപ്പോൾ കണ്ടുവരെ സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ വരെ ശാസ്ത്രം പുരോഗമിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് ഈ മൊബൈൽ ഫോണുകൾ ഞാൻ ഉപയോഗിക്കുന്ന സിമ്മ് ജിയോ ആണ് ജിയോ എനിക്കി കുന്ന റെയിഞ്ച് ഒക്കെ വളരെ കുറവാണ് എൻ്റെ വീട്ടിൽ ഒന്നും റേഞ്ച് വലുതായിട്ടില്ല അതുപോലെത്തന്നെ ജിയോ എന്ന് പറയുമ്പോൾ ഒറ്റ കാര്യത്തില് മാത്രമേ കൊള്ളാവൂ കാരണം ഞാന് ഇപ്പോള് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപയ്ക്കാണ് ചെയ്യുന്നത് മാസം ദിവസം ഒന്നര ജീ ബി വച്ച് ഇരുപത്തിയെട്ട് ദിവസത്തേക്ക് കിട്ടും എന്നാല് ബാക്കിയുള്ള സിമ്മുകൾ ആണെങ്കിൽ ഒരു ജി ബി ഇരുന്നൂറ്റി മുപ്പത്തൊൻപത് രൂപ ആയിരിക്കും